സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും വളർച്ച ഇൻ്റർനെറ്റിൻ്റെയും വളർച്ച ഉണ്ടായതോടെ മലയാള ഭാഷയുടെ ഉപയോഗം കുറഞ്ഞുകൊണ്ട് വരികയാണ് കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വന്നതോടെ മലയാള ഭാഷയ്ക്ക് മലയാള ഭാഷയുടെ ഉപയോഗം കുറഞ്ഞു ഇംഗ്ലീഷ് ഭാഷയാണ് സ്വീകരിച്ച് സ്വീകരിക്കുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ സ്കൂളുകളിൽ വരെ സെക്കൻഡ് ലാംഗ്വേജായിട്ടും ഇംഗ്ലീഷാണുള്ളത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണുള്ളത് അപ്പോൾ സാങ്കേതികവിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മലയാള ഭാഷയ്ക്ക് മാറ്റങ്ങൾ വന്നുതുടങ്ങി ഇംഗ്ലീഷ് ഭാഷയോടൊപ്പം സ്കൂളുകളിൽ തന്നെ ആകട്ടെ ഇപ്പോൾ ചില മലയാള ഭാഷയൊന്നും പാടില്ല കൂടുതലായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാണ് പറയുന്നത് എപ്പളും ഇംഗ്ലീഷ് സംസാരിക്കാൻ മലയാളം സംസാരിച്ചിട്ടുണ്ടെങ്കില് ഫൈൻ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ സാങ്കേതികവിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഉപയോഗം വരുമ്പം മലയാള ഭാഷയുടെ മാറ്റമെന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗം തന്നെ ഇല്ലാന്ന് തന്നെയല്ലേ പറയാൻ പറ്റുകയുള്ളു